ഹലോ ആ നമസ്കാരം ഞാൻ ആ ഞാൻ എനിക്ക് കുറച്ചു കാര്യങ്ങൾ അറിയാനായിരുന്നു ഞാൻ വയനാട് ഞാനും കുറച്ചു എൻ്റെ ഒരു അഞ്ച് ആറ് സുഹൃത്തുക്കളുമായിട്ട് വയനാട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയിലാണ് ആ ഒരു അഞ്ച് ആറ് പേരുണ്ട് ഞങ്ങൾ അതിന് അതിന് പറ്റിയ ഒരു ആ ഒരു അക്കോമഡേഷൻ പിന്നെ ആ അതുപോലെ അവിടെ ഒരു അമ്പലം ഇല്ലേ ആ സീതാദേവി അമ്പലം ഓക്കെ ഓക്കെ അപ്പം അതും അ അതൊന്ന് അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഇത് അവിടെ വരിക എന്നുള്ളതാണ് പിന്നെ അപ്പം അതിനോട് അടുത്തുള്ള ഏതെങ്കിലുമൊരു അക്കോമഡേഷൻ പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓക്കെ ഓക്കെ കുഴപ്പമില്ല വണ്ടി വേണം നമ്മൾക്ക് എന്തായാലും ആ അതും വേണം കാരണം ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്ക ഉണ്ടല്ലോ അപ്പം അത് മാത്രമല്ല കുറച്ചു ട്രെക്കിങ്ങ് അവിടെ ഇവിടെയെങ്കിലുമൊക്കെ ലോക്കൽ കുറച്ചു കാണാൻ പാകത്തിന് ഞങ്ങൾ ഇതുവരെ വന്നട്ടില്ല വയനാട് അപ്പം ആ അത് ഇതിപ്പം കാലാവസ്ഥ എങ്ങനെയാണ് അവിടെ ജനുവരി മാസത്തിലാണോ അപ്പം ഇപ്പം വന്നെങ്കിൽ അവിടെ വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ജനുവരിയിലേക്ക് മാറ്റിയാലോ ആ അങ്ങനെ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഞങ്ങൾ ഒരു ആഴ്ചയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഉത്സവം പിന്നെ അതുപോലെ ഞങ്ങൾക്ക് അവിടെയുള്ള ലോക്കൽ ആ അപ്പം അവിടത്തെ ആ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ ബൂക്ക് ചെയ്യാം അങ്ങനെയാണേന്നുണ്ടെങ്കിൽ വല്ല റേറ്റിൽ കുറവ് വല്ലതും ഉണ്ടാവുമോ അ അഞ്ചു പേരുണ്ട് എന്തായാലും അഹാ ഓക്കെ

ട്രാവല് ട്രാവൽ എല്ലാം കൂടെ ചേർത്തല്ലേ അവിടത്തെ ലോക്കൽ സൈക്ലിങും അതുമിതും എല്ലാം ട്രെക്കിങ്ങും

ഓക്കെ ഓക്കെ അപ്പം അതുമതി അങ്ങനെയാണെങ്കിൽ അതു മതി ഞങ്ങൾ അഞ്ചു പേരിൽ രണ്ട് ലേഡിസ് ഉണ്ടാവും

ഓക്കെ അപ്പം അങ്ങനെ ആണെങ്കിൽ ഈ ഇതിന് പേയ്മെൻറ്റ് എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് വല്ലതുമുണ്ടോ